ഇപ്പോൾ ബോളിവുഡ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിലെ ഒരു അത് ഏത് നമ്മൾ ഒരു സിനിമകളൊക്കെ കാണുന്ന പോലെത്തന്നെ ബോളിവുഡ് ടോളിവുഡ് മോളിവുഡ് അങ്ങനെ പലരീതിയിലുള്ള ഇതൊക്കെയുണ്ട് സിനിമകളൊക്കെയുണ്ട് അപ്പോൾ അവരെ എന്താ പറയുക ഇപ്പോൾ ടോളിവുഡ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തമിഴിൽ പറയുന്നതാണ് ടോളിവുഡ് എന്നൊക്കെ പറഞ്ഞാൽ മോളിവുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളത്തെ പറയുന്നതാണ് അപ്പോൾ നമ്മുടെ ഓരോ കഥാപാത്രങ്ങളും കാര്യങ്ങളൊക്കെയുണ്ട് അപ്പോൾ അവരുടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവരുടെ ഫാഷനും ട്രെൻഡിങ്ങ് ഒക്കെ ഇപ്പോൾ നമുക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ് കാരണം എന്തെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇപ്പോൾ മോഹൻലാൽ ഒരു പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട് ജയിലർ എന്നു പറഞ്ഞിട്ടുള്ള അപ്പോൾ ആ ജയിലർ എന്ന് പറയുന്ന പടത്തിൽ മോഹൻലാലിൻ്റെ ഒരു വേഷം എന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ട്രെൻഡിങ്ങ് ആയിട്ട് ഇപ്പോൾ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഒരു ജയിലറിലുള്ള ഇട്ട വേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയാണ് അപ്പോൾ അതേപോലെയൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ് ചില സമയങ്ങളിൽ നമ്മുടെ ഇപ്പോൾ ആട് എന്ന് പറഞ്ഞ ഒരു പടം ഉണ്ട് ആട് ആട് ടൂ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതിൽ ജയസൂര്യ ഇട്ട ഒരു മുണ്ട് ഒരു ഷർട്ട് അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡബിൾ ടോൺ ആയിട്ടുള്ള മുണ്ടും കാര്യങ്ങളൊക്കെ എന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ട്രെൻഡിങ്ങ് ആയിട്ടുള്ള ഡ്രെസ്സും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ നല്ല രീതിയിൽ മാറ്റങ്ങൾ ഒക്കെ വന്നിട്ടുണ്ട്